ഇന്നത്തെ കാലത്ത് ഗ്രാമങ്ങളിൽ നിന്നുള്ള നിരവധി പേർ വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പിന്തുടരാൻ പട്ടണങ്ങളിലേക്ക് കൂടിക്കയറുകയാണ് ഈ പട്ടണവൽക്കരണ പ്രക്രിയയിൽ യുവാക്കൾ പുതിയ ജീവിതശൈലികൾ സ്വീകരിക്കുകയും അവരുടെ സാമൂഹിക ബന്ധങ്ങൾ പുരാതന പാരമ്പര്യങ്ങളിൽ നിന്ന് മാറുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രധാന പ്രത്യാഘാതങ്ങൾ യുവതലമുറയുടെ വിവാഹ ജീവിതത്തിലേക്ക് കൂടി വ്യാപിക്കുന്നുണ്ട് ഒന്നാമതായി തന്നെ സാംസ്കാരികപരമായ വ്യത്യാസങ്ങളുണ്ട് അഥവാ പട്ടണങ്ങളിൽ വളർന്നു വരുന്നവർക്കും പട്ടണങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഗ്രാമങ്ങളിലുള്ളവരുമായി കുറവായ സാമൂഹിക ബന്ധങ്ങളാണ് നിലനിൽക്കുന്നത് പലപ്പോഴും ഗ്രാമീണ സംസ്കാരവും നഗര സംസ്കാരവും തമ്മിലുള്ള ഭിന്നതകളാൽ ഉള്ള പൂർവീകരണങ്ങൾ സംഭവിക്കുകയും ഉചിതമായ പങ്കാളിയെ തിരഞ്ഞെടുക്കാനായി വരുന്ന തീരുമാനങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവുകയും ചെയ്യുന്നുണ്ട് രണ്ടാമതായി ജീവിതശൈലിയിലെ വ്യത്യാസമാണ് അഥവാ പട്ടണ ജീവിതം ഏറെ തിരക്കുള്ളതും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും മുൻതൂക്കം നൽകുന്നവയുമാണ് ഇതിൻ്റെ ഫലമായി പുരാതന കുടുംബ കോൺസെപ്റ്റിൽനിന്ന് വ്യത്യസ്തമായ ചിന്താഗതി യുവതലമുറ സ്വീകരിക്കുന്നുണ്ട് പലപ്പോഴും കുടുംബം തിരഞ്ഞെടുത്ത പാതകൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശത്തിനിടയിലുമുള്ള ഒരു സംഘർഷമാണ് യുവാക്കൾ അനുഭവിക്കുന്നത് മൂന്നാമതായി യോഗ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള പരിധികളുണ്ട് അഥവാ പട്ടണങ്ങളിൽ മറ്റൊരാളുമായി ദൈർഘ്യ വ്യക്തതമായ ബന്ധം സ്ഥാപിക്കാൻ സമയക്കുറവും വ്യക്തിഗത ലക്ഷ്യങ്ങൾ പിന്തുടരാനുള്ള തിരക്കുമുള്ളതിനാൽ നല്ല പങ്കാളിയെ കണ്ടെത്താനാകാതെ പോകുന്നുണ്ട് സമൂഹപരമായി മാർജിനൈലൈസ് ചെയ്യുന്ന ചില ഗ്രൂപ്പുകൾക്കിടയിൽ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായി തോന്നുന്നുണ്ട് നാലാമതായി ടെക്നോളജിയും ഓൺലൈൻ ബന്ധങ്ങളുമുള്ള പരിധികളാണ് അഥവാ പട്ടണവാസികളുടെ ഭൂരിഭാഗവും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പങ്കാളിയെ കണ്ടെത്താനാശ്രയിക്കുന്നു എന്നാൽ ഇതിൽ വിശ്വസ്തതാ പ്രശ്നങ്ങൾ ആഴമുള്ള ബന്ധങ്ങൾക്ക് പകരം ഉപരിവിപ്ലവമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നതും യുവാക്കളെ മോഹഭംഗത്തിനും ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കുന്നുണ്ട് അഞ്ചാമതായി സ്വാതന്ത്ര്യവും വിവാഹത്തിനുമുള്ള മന്ദതയുമാണ് പട്ടണങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും സ്വതന്ത്രമായി ജീവിക്കുകയും മുപ്പത് വയസ്സാവുന്നതോടെ കൂടെ വിവാഹം ചിന്തിക്കാതിരിക്കുന്ന ധാരണയും വളരുകയാണ് ജീവിത പങ്കാളിയെന്ന ആശങ്ക വൈകിയ സമയത്തേക്ക് മാറ്റപ്പെടുമ്പോൾ ചിന്താഗതികളിലും ചായലുകളും പൊരുത്തം കാണുന്ന ഏറെ ബുദ്ധിമുട്ടാകുന്നുണ്ട് അതിനാൽ പട്ടണങ്ങളിലെ ജീവിതശൈലി അതുപോലെ സ്വതന്ത്ര ചിന്താഗതികൾ സമൂഹമാധ്യമങ്ങളുടെ ഭാഗ്വത്വം കുടുംബ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്നിവയൊക്കെ ചേർത്ത് യുവതലമുറയ്ക്ക് അനുയോജ്യമായി ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ സാഹചര്യത്തിൽ മാനസിക പിന്തുണയും സാങ്കേതിക സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും കുടുംബ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും വളരെയധികം അനിവാര്യമാണ്